ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തു ഞാൻ സെക്കണ്ടറി വിഭാഗം പത്താം ക്ലാസ് സ്കൂളിൽ പാഠിച്ചോണ്ടിരുന്ന സമയത്തു ഞാൻ കലോത്സവത്തിനായി മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടി വന്നു അതും ഇംഗ്ലീഷ് പ്രസംഗത്തിനും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പൊയംസ് പ്രസെൻറ്റേഷന് വേണ്ടി ആ ഒരു സമയത്തു പാലക്കാട് വേറൊരു മറ്റൊരു സ്കൂളിലാണ് മത്സരം നടന്നു കൊണ്ടിരുന്നത് നമ്മള് അവിടെ വച്ചാണ് അത് പങ്കെടുത്തതും അതുകൊണ്ട് അവിടേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അവിടെ പോയി മത്സരത്തിൽ പങ്കെടുക്കാൻ കുറേ വേറെ അധികം കുട്ടികളുണ്ടായിരുന്നു എന്നാൽ പരുപാടി തുടങ്ങി മൂന്നാമത് ചെസ്സ് നമ്പർ ആയിരുന്നു എൻ്റെ ആ സമയത്തു ഞാൻ കയറി പ്രസംഗിക്കുകയും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളെല്ലാം കാണുകയും എല്ലാം ചെയ്തിരുന്നു പ്രസംഗത്തിൽ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസായി ഞാൻ പറയുകയും പക്ഷെ എല്ലാവർക്കും അതിഷ്ട്ടപ്പെടുകയും ചെയ്തു എന്നാൽ പക്ഷെ എനിക്ക് അതിൽ വിജയിക്കുമെന്നോ എന്നെനിക്കൊരു ആഗ്രഹവുമുണ്ടായിരുന്നില്ല പക്ഷെ ആ കലോത്സവ വേദിയിൽ റിസൾട്ട് അനോൺസ് ചെയ്യുന്ന സമയത്തു ആദ്യ സമ്മാനം എനിക്കായിരുന്നു അത് വളരെ ഒരു അഭിമാനപ്പെട്ട ഉപകാരപരമായ നേട്ടം ആയി ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് റേസിറ്റേഷനും അവിടെന്ന് എനിക്ക് രണ്ടാമതായി വിജയിക്കാൻ പറ്റി അതും വളരെ അഭിമാനകരമായ നേട്ടമായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ പരുപാടിക്ക് പോയപ്പോൾ ഞാൻ വേറെ പല സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെയും പല കൂട്ടുകാരെയും കണ്ടു മുട്ടി ഇതിൽ ഈ കേരള കലോത്സവത്തിനായി അവിടെ പോയപ്പോൾ ഇതിൽ ഏറ്റവും എനിക്ക് അഭിമാനകരമായ നേട്ടം ഇതാണ് എനിക്ക് അവിടെ പോയപ്പോൾ വേറെ പല കൂട്ടുകാരെയും കൂട്ടുകാരികളെയും കിട്ടി ആ ഒരു നേട്ടം ഇനി ജീവിതത്തില് അത് എപ്പോഴും നിലനിർത്തുമെന്നും എപ്പോഴും അവരായി കൂട്ടുകൂടണമെന്നും എപ്പോഴും അവരുമായി സംസാരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഇത് ഒരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു അവിടെ പോയി മത്സരങ്ങളിലെല്ലാം സമ്മാനം നേടിയെങ്കിലും അവിടെ പോയി ഈ വേറെ സ്കൂളുകളിലുള്ള വേറെ കലാലയങ്ങളിൽ പഠിക്കുന്ന സ്കൂളു കുട്ടികളുമായി കൂട്ടുകൂടാനും സംസാരിക്കാനും അവരുമായി ബന്ധം പുതുക്കാനും ഇനിയും സാധിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അവിടെപ്പോയി അവരെ കണ്ടുമുട്ടിയതും അവരുമായി കൂട്ടു കൂടിയതുമാണ് എനിക്ക് അവിടെ നിന്നും കിട്ടിയ ഏറ്റവും വലിയ നേട്ടം അതാണ് എൻ്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടവും അതിൽ ഇപ്പോൾ ഞാൻ വേറെ വിഭാഗം കോളേജിനുള്ളിലാണ് പഠിക്കുന്നത് എന്നാലും അവിടെ കലോത്സവത്തിന് പോയ കുട്ടികളുമായി ഇപ്പോഴും എനിക്ക് ബന്ധം പുതുക്കാനും അവരുമായി സംസാരിക്കാനും ഇപ്പളും സാധിക്കുന്നു വളരെ മികച്ചൊരു നേട്ടമായിട്ടാണ് ഞാനത് കാണുന്നത് അത് വളരെ അഭിമാനകരമായി ഞാനത് കാണുന്നു അതിൽ ഞാൻ സന്തുഷ്ടവാനാണ് താങ്ക്യൂ